ഇപ്പം കേരളം ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നേരിട്ടത് പണ്ടു മുതലേ ഒരു കാര്യമാണ് ഈ മതത്തിൻ്റെ പേരിലും ഒക്കെ അടിയും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പരസ്പരം ആര് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തളുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്യുക മതത്തിൻ്റെ പേരിലാണ് കൂടുതൽ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇപ്പോൾ പലതരം പാർട്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിലും പല രാജ്യങ്ങളിലും എല്ലാ എന്താ പറയുക എല്ലായിടത്തും ഇങ്ങനെ ഒരു പല പല പാർട്ടികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് വച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്കാരെ അവരെ വെട്ടുക വെട്ടിക്കൊലപ്പെടുത്തുക പിന്നെ നമ്മൾ അവരുടെ പാർട്ടിക്കാർ ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തുക അങ്ങനത്തെ പല രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികളുടെ ഒരു കടന്നു കയറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾത്തന്നെ പലസ്ഥലങ്ങളിലും കടുവ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ടി വിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്